ചേട്ടാ ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി ബ്രേക്ഡൗൺ ആയിട്ട് ഞാൻ ആ നടു റോഡിൽ നിന്ന് കൈകാണിച്ചിട്ട് അതിലെപോയ എത്ര വണ്ടിക്കാർ കാലി വണ്ടിക്കാർ പോയിട്ട് പോലും നമ്മൾ കൈകാണിച്ചിട്ട് നിർത്തിയില്ല ചേട്ടനാസമയത്തു വന്ന് കൈകാണിച്ചു നിർത്തി അതുമല്ല അതുപോലെ ഭയങ്കര മഴ എന്നാന്ന് പറഞ്ഞാലും ചേട്ടൻ വണ്ടി നിർത്തി ഇത്രയും രാത്രി ആയിട്ട് പോലും നമ്മളെ സേഫ് ആയിട്ട് വീട്ടിൽ എത്തിക്കാൻ ചേട്ടൻ കാണിച്ചതിന് നമുക്കെന്നാ പറഞ്ഞാലും കാരണം എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തു നമുക്ക് വിശ്വസിച്ചു അതും അല്ല ഈ രാത്രീലൊക്കെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്തും നടക്കുന്ന കാലമാണ് ചേട്ടൻ വിശ്വസിച്ച് നമ്മളെ ഇത്രേം സേഫ് ആയിട്ട് വീട്ടിൽ എത്തിച്ചേന് നന്ദിയുണ്ട് അപ്പം അത് വിളിച്ചൊന്ന് അറിയിക്കാമെന്ന് ചേട്ടനോട് പറയാന്നുള്ളത് എൻ്റെയൊരു കടമയാണ് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്